ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അതേപോലെ കുറേ പറമ്പും കൃഷിയും എല്ലാം ഉണ്ട് പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലുള്ള ഈ ഒരു കാട്ടുപന്നിയുടെ ഉപദ്രവമാണ് രാത്രി ആകുമ്പോൾ കാട്ടുപന്നികൾ നിറയെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ കുറച്ചൊരു ഹില്ലി ഏരിയാണ് ഇവിടെ പറമ്പിൽ തെങ്ങുണ്ട് പിന്നെ റബ്ബറുണ്ട് വാഴ മാവുണ്ട്

പിന്നെ അല്ലാണ്ടും ഈ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ അടിയിൽ ഓരോരോ ഇപ്പോൾ കപ്പ കപ്പയാണെങ്കിലും ടാപ്പിയോക്ക അതും പിന്നെ ഈ പറഞ്ഞ വേറെ കുറേ കിഴങ്ങുവർഗ്ഗങ്ങൾ എല്ലാം നട്ടു വളർത്തുന്നൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കാട്ടുപന്നി വന്ന് രാത്രി സമയങ്ങളിൽ വന്ന് അത് എല്ലാം കുത്തിയിളക്കി പോകുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് കൃഷിയും കാര്യങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല രാത്രി സമയങ്ങളിലാണ് ഇവരുടെ വരവും ഇങ്ങനെ മുഴുവൻ നശിപ്പിച്ചിട്ട് പോകുന്നത് ഒന്ന് രണ്ട് ആൾക്ക് ആളുകൾക്ക് രാത്രി സഞ്ചരിക്കുന്നവർക്ക് കാട്ടുപന്നികളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഉപദ്രവവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല

അതിനൊരു പ്രത്യേക എന്തെങ്കിലും തരം ഇതോ ഒന്നും നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കൂടുതലും വേസ്റ്റ് കഴിക്കാൻ വരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അവരുടെ കൊമ്പ് വച്ചിതെല്ലാം കുത്തി ഇളക്കി കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ടെന്നാണ് നിലവിൽ എനിക്കറിയാൻ സാധിച്ചത് പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് മനുഷ്യർക്കും ബുദ്ധിമുട്ടുതന്നെയാണ് രാത്രി ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റില്ല രാത്രി നടക്കുന്നവർക്ക് രണ്ട് മൂന്നുപേർക്ക് അതിൻ്റെ ഒരു അറ്റാക്കും കിട്ടിയിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും പറമ്പുമുഴുവൻ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കാട്ടുപന്നി വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ചത് കാണാൻ സാധിക്കാറുണ്ട് പലപ്പോഴും ഒന്നലധികം കാട്ടുപന്നികളുണ്ട് രാത്രി സമയങ്ങളിലായതുകൊണ്ടുതന്നെ അധികം പേർ അത് ശ്രദ്ധിക്കുന്നില്ല കാണുന്നില്ല